ഹലോ ഹലോ ആ ഇത് മീഷോ അല്ലേ ഞാൻ ഇവിടെ ആട്ടുകാൽ കഴക്കുന്നന്നാണേ വിളിക്കുന്നത് ആ ഒരു രണ്ട് വീക്ക് മുന്നേ ഞാൻ ഒരു സാരി ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇന്നലെ കിട്ടി പക്ഷേ അത് ഫുള്ള് ഡാമേജായിരുന്നു ആയിരുന്നു ആ നല്ല ഡാമേജായിരുന്നു എന്ന് വെച്ചാൽ അതിലെ സീക്കൻസൊക്കെ ഇളകി കുറെ സ്ഥലമൊക്കെ കീറിയേക്കേയാണ് ഇരുന്നത് ആ ഞാൻ ഇതിനു മുന്നേ നല്ല പ്രോഡക്റ്റ് മീഷോന്ന് ബുക്ക് ചെയ്ത് വാങ്ങീട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഇത്ര കുഴപ്പമില്ലായിരുന്നു പിന്നെ ഓരോരുത്തരുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് നല്ല പ്രോഡക്റ്റാണന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടം മീഷോന്ന് വാങ്ങിച്ചത് പക്ഷേ വളരെ മോശം പ്രോഡക്റ്റായിരുന്നു ആ അല്ല അല്ല നല്ല നല്ല മോശം പ്രോഡക്റ്റായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഡാ നല്ല ഡാമേജായിരുന്നു സാരി ഓരോരുത്തരുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മളത് കേട്ടിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നത് ആ അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പ്രോഡക്റ്റ് റിട്ടേണടിച്ച് എനിക്ക് തിരിച്ച് നിങ്ങൾ ക്യാഷ് അയച്ച് തന്നാൽ മതി എനിക്ക് പ്രോഡക്റ്റ് എന്തായാലും വേണ്ട എന്തായാലും കീറിയത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ

അല്ല നല്ല ഡാമേജാണ് അത് നിങ്ങൾക്ക് ഞാൻ റിട്ടേൺ അടിച്ച് തരാം അപ്പം നിങ്ങൾ അത് നോക്ക് അല്ല ഇങ്ങനെ ആയാൽ പിന്നെ ആൾക്കാർ എന്തോന്ന് ചെയ്യും ആ ഞാൻ അത് മാത്രമല്ല കളറും ചേഞ്ച് ആയിരുന്നു ഞാൻ ഒരു ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിരുന്നത് വന്നത് ഗ്രീൻ കളറ് ആ എന്തായാലും ഞാൻ ഇത്ര ഇതായിരുന്നോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ എന്തായാലും ഇനി മീഷോന്ന് ഒരു പ്രോഡക്റ്റും ഞാൻ ബുക്ക് ചെയ്യില്ല ഇതോടെ മതിയായി ആ ആ ശരി ഓക്കെ